എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വന്ന വെല്ലുവിളി എന്ന് പറയുന്നത് പഠന കാലങ്ങളിൽ തന്നെയായിരുന്നു പഠന കാലത്തെന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാരി ഉണ്ടായിരുന്നു എൻ്റെ വലിയ ഏറ്റവും അടുപ്പമുള്ള എൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും അവളുടെ ഇങ്ങോട്ടും എല്ലാം സംസാരിക്കുമായിരുന്നു അപ്പോൾ ആ ഒരു നല്ല രീതിലായിരുന്നു നമ്മുടെ ഒരു റിലേഷൻഷിപ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് എനിക്കെന്തോ മനസിലെന്തു വിഷമം വന്നാലും ഞാനവളോട് പറഞ്ഞ് എൻ്റെ ആ വിഷമം അവള് തീർത്തു തരും അങ്ങനെയുള്ള ഒരാള് പെട്ടന്ന് ഒരുദിവസം ഒരാക്സിഡൻ്റിൽ മരിച്ചുപോയി അപ്പോൾ അതെനിക്കേറ്റവും കൂടുതൽ ജീവിത്തത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്തത് മറക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ എൻ്റെ എൻ്റെ ജീവൻ കൂടി ഇല്ലാതായ ഒരു ദിവസമായിരുന്നു അത് അപ്പോൾ ആ ഒരു അവളുടെ ആക്സിഡൻ്റ് പിന്നെ അവൾ മരിക്കുകയും അതിനുശേഷം എനിക്ക് പഠിക്കാനും അതുപോലെ പഠനത്തിൽ പഠനത്തിൽ ശ്രദ്ധിക്കാനൊന്നും എനിക്ക് കഴിഞ്ഞിരുന്നില്ല പിന്നെ എക്സാമിനുപോലും അത് ബാധിച്ചു ബാധിച്ചിട്ടുണ്ടായിരുന്നു അതാണെനിക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളി നിറഞ്ഞ ഒരു അനുഭവം പിന്നീടത് തരണം ചെയ്തെന്ന് വെച്ചാൽ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പിന്നെ അങ്ങനെ ഓർമ മറന്ന് മറന്ന് ഇപ്പം നമുക്കെല്ലാവർക്കും മറവി ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അത് എൻ്റെ മനസിൽ നിന്നും മെല്ലെ മെല്ലെ മറന്ന് മറന്ന് പോയി പിന്നീട് ഞാൻ ഒരുപാട് സമയം എടുത്തു ഞാൻ റിക്കവർ ചെയ്തു വരാന് അപ്പോൾ അങ്ങനെയാണ് ഞാന് അതിൽനിന്നും തരണം ചെയ്ത് ഓർമ ഓർമ മറന്നു മറന്നു പോയിട്ടാണ് ഞാനതിൽനിന്നു റിക്കവർ ചെയ്തത്